ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിലെ പ്രധാന അതായത് വിനോദ കേന്ദ്രങ്ങള് രാത്രികളില് ഉണർന്നിരിക്കുന്ന സ്ഥലങ്ങള് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയൊരു ചോദ്യം ഉണ്ടെങ്കി നമ്മളെല്ലാരുടേം മനസിൽ ആദ്യം ഓടിയെത്തുക ബീച്ചുകളാണ് ഇപ്പ മെയിനായിട്ട് ബീച്ചുകള്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പകലൊന്നും പോയിട്ട് ആസ്വദിക്കാനേ പറ്റാത്തൊരു സ്ഥലാണ് അപ്പോൾ നമ്മള് മെയിനായിട്ട് നമ്മള് രാത്രികളിൽ അതായത് രാത്രിന്നു വെച്ചിട്ടുണ്ടെങ്കി ഒരു അഞ്ചര അതായത് സായാഹ്നം അതായത് നമുക്ക് സൂര്യാസ്തമയൊക്കെ കാണാൻ കഴിയുന്നൊരു അഞ്ചര ആ ഒരു ടൈമ് തൊട്ടൊരു ഏഴര എട്ട് മണി വരെയൊക്കെ നമ്മള് നമുക്കാസ്വദിക്കാൻ പറ്റും പിന്നെ അതുപോലെത്തന്നെ നമുക്ക് സ്ട്രീ സ്ട്രീറ്റ് ഫുഡുകള് തട്ടുകടേലെ ഫുഡ് അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ അതായത് നമുക്ക് അതായത് നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നൊരു ടൈമ്ന്ന് വച്ചിട്ടുണ്ടെങ്കി നൈറ്റ് തന്നെയാണ് അതായത് ഒരുപാട് ചൂട് ഇതിപ്പോൾ നമുക്കറിയാം നമ്മുടെ ജില്ലേലൊക്കെ ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെയുള്ളൊര് ടൈമാണ് നമുക്കൊരുപാട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ടൈമ്ന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് രാത്രി തന്നെയാണ് നല്ല കടൽക്കറ്റൊക്കെ കൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സുഖമായിട്ടിരിക്കാം